ഹലോ ആ ആ കേൾക്കാന് പറ്റുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ആ വിളിച്ച് ആ പറഞ്ഞോ പറഞ്ഞോ പ്ലേസ് നെയിം ഞാനും അതേ ഒരു ഫീള്ഡിലേക്ക് തന്നെ ഇപ്പം തിരിഞ്ഞാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെ എനിക്കൊരുമാതിരി ഇന്ട്രസ്റ്റ് ഉള്ള മേഖലയാ അത് ആ ഒയ്യോ വളരെ നല്ല ടോപ്പിക്കാണ് കേട്ടോ ഇതൊരുപാട് പേർ അവോയ്ഡ് ചെയ്ത് കളയുന്നതാ അല്ലതിനെ വാമൊഴിയായിട്ട് മാത്രം ഇത് മുന്നോട്ട് പോവുന്ന ഒരു തരം ടോപ്പിക്കാണിത് ഇത് ഒരു ആരും ഒന്നും കുറിച്ച് വെക്കാന് തയാറായിട്ടില്ല എവിടെയൊക്കെ അവിടെ ഇവിടങ്ങളിലായിട്ട് കുറിച്ച് വിട്ട് അതായത് വികസന രേഖകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ചരിത്രം പറയുമ്പോൾ ആ പ്രദേശത്തിന്റെ മാത്രം അങ്ങനെയൊക്കെ കുറിച്ചു പോയിട്ടുള്ളൂ പക്ഷെ നമ്മളിപ്പം ചെയ്യാന് പോവുന്നത് അല്ലെങ്കിൽ കുട്ടിയിപ്പം ചെയ്യാന് പോവുന്നത് വളരെ വലിയ ഒരു കാര്യമാ കാരണം എല്ലാംകൂടെ ശേഖരിച്ച് കൊണ്ടുവന്ന് എല്ലാം ഒരു കുടക്കീഴിലേക്കാക്കാന് പോവുകയാ അതൊരു വലിയ സോഴ്സ് തന്നെ ആയിരിക്കും നമ്മുടെ ഭാവിയിലേക്ക് ഭാവി തലമുറയ്ക്ക് സബ്ജെക്റ്റീവായിട്ട് പോവാന് സാധ്യതയുണ്ടെങ്കിലും നമ്മുടെ പ്രൈമറി സോഴ്സാണ് ശരിക്കും ഈ ഓറൽ ഹിസ്ട്രീ എന്ന് പറയുന്നത് അപ്പം നമ്മൾ മാക്സിമം അത് പിന്നെ എടുക്കുക പിന്നെ നമ്മുടെ ഈ വികസന രേഖയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സെക്കണ്ട്രി കിട്ടുമല്ലോ ഉറപ്പായിട്ടും വികസനരേഖ അങ്ങനെയുള്ള മറ്റ് പുസ്തകങ്ങളൊക്കെ നോക്കണം അങ്ങനെയൊക്കെ നമുക്ക് സെക്കണ്ട്രി സോഴ്സസ് കിട്ടും പിന്നെ വാമൊഴി ആയിട്ട് തന്നെ പോകുന്നത് വലിയ കുഴപ്പം ഇല്ല കാരണം നമുക്ക് പ്രൈമറി സോഴ്സസാണല്ലോ എപ്പോഴും കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടുള്ളത് ആ ഒരിക്കലും പേടിക്കേണ്ട കേട്ടോ അത് മുന്നോട്ട് പോകാം ഇപ്പം ഏതൊക്കെ സ്ഥലങ്ങളാ എടുക്കാനായിട്ട് കുട്ടി ആഗ്രഹിക്കുന്നത് വാര്ഡുകളിലെ മാത്രം എടുക്കുന്നുള്ളൂ ആ ആ ഹാ ഹാ ആ ആ അത് മുന്നോട്ട് പോവാന് സാധിക്കുന്നുണ്ടോ ഇപ്പം തടങ്ങിയത് വെച്ചിട്ട് ആ ഹിസ്ട്രീ ഡിപ്പാര്ട്ട്മെന്റിൽ ഒരുപാട് ഈ ടെറിബിൾ ഹിസ്ട്രീടെ ബുക്കുകളിരിപ്പുണ്ട് അതാണ് എനിക്കിപ്പം കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത് കാരണം അതിൻറ്റകത്തൊരുപാട് സ്ഥലനാമങ്ങളുടെ ഇതുണ്ട് ഞാനത് വായിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനെഴുതാനും അതുപയോഗിച്ചിട്ടുണ്ട് പിന്നെ വികസനരേഖകൾ ആ അത് വളരെ നല്ലൊരു ചോദ്യമാണ് വൃന്ദാ അല്ല ഐശ്വര്യ അനുപ്രിയ സോറീ കേട്ടോ എനിക്ക് പേര് പേര് വേഗം കിട്ടിയില്ല അനുപ്രിയ ആ ഈ സ്ഥലനാമത്തിൽ തിരിക്കുമ്പോൾ വ്യക്തി സംബന്ധം സ്ഥലം അങ്ങനെ സ്ഥലനാമങ്ങൾ വന്നിട്ടിണ്ട് പിന്നെ പിന്നെ ദ്വീപസംബന്ധം പിന്നെ ചരിത്ര സംബന്ധം ഭൂമിശാസ്ത്രപരം അങ്ങനെ ഉള്ള ഒരുപാട് സബ്ഡിവിഷനുകളായിട്ട് നമുക്കിതിനെ തിരിക്കാനായിട്ട് സാധിക്കും അതെ ഈ ഈ പേര് വന്ന് അതായത് പൊട്ടന്കാട് എന്നൊരു സ്ഥലനാമ ചരിത്രം വന്നത് അവിടൊരു പൊട്ടനായിട്ടുള്ള ആനയുണ്ടായിരുന്നു അല്ലെങ്കിലവിടെയൊരു പൊട്ടനാനയുണ്ടാരുന്നു ഈ രണ്ട് കഥയും പറയുന്നുണ്ട് അതൊരു ഇപ്പം അതൊരു വ്യക്തി സംബന്ധമായിട്ട് മാറുകയാ അതായത് പൊട്ടന് ആനയുണ്ടായിരുന്നു ഈ പൊട്ടന് ഈ ആനനെ നിയന്ത്രിക്കാന് സാധിച്ചില്ല അത്കൊണ്ട് ഈ പൊട്ടനും ആനയെയുംകൂടെ കൂട്ടിച്ചേര്ത്തവിടെ പൊട്ടൻകാട് എന്നൊരു പേര് വന്നു അങ്ങനെയൊക്കെയാണ് അത് അപ്പം ഒരു വ്യക്തി സംബന്ധമായിട്ട് ഇപ്പം കാല്വരി മൗണ്ടെന്ന് പേര് വന്നുകൊണ്ട് പള്ളി വന്നു അവിടെ അപ്പം ഒരു ഉയര്ന്ന മേഖലയായിരുന്നു അതുകൊണ്ടവിടെ കാല്വരി അതായത് ഈ ഏരിയ ഗാഗുല്ത്താ മലയുടെ ഒരു വേര്ഷന് അവിടെ ഉണ്ടാക്കി വെച്ചു അതുകൊണ്ടത് ദൈവസംബന്ധമായി ആ പേര് വന്നപ്പം കാല്വരി മൗണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പല സബ്ഡിവിഷനായിട്ട് തിരിക്കാനായിട്ട് പറ്റും മൂന്ന് ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം അതിന്റെ കൂടെ തന്നെ ആദ്യത്തെ ഇന്ട്രൊഡക്ഷന് ചാപ്റ്ററ് സിനോപ്സിസ് വരുന്നുണ്ട് ലാസ്റ്റത്തെ കണ്ക്ലൂഷന് ചാപ്റ്ററ് വരുന്നുണ്ട് നമുക്കഞ്ച് ചാപ്റ്ററിന്റെ ആവശ്യം അതിൻറ്റകത്ത് ഫസ് ചാപ്റ്ററ് നമ്മൾ ശരിക്കും ഈ സിനോപ്സിസിലേക്ക് പോവും സെക്കന്ഡ് ചാപ്റ്ററ് വരുമ്പം നമ്മൾ ആ മുഴുവനുള്ള വിഷയങ്ങൾ അതായത് സ്ഥലനാമം എന്ത് ഇടുക്കിയുടെ സ്ഥലനാമം കേരളത്തിന്റെ സ്ഥലനാമ ചരിത്രം എന്നാ പിന്നെ ഈ ഈ സബ്ഡിവിഷനുകള് നമ്മൾ ദൈവസംബന്ധം വ്യക്തിസംബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളക്കെ ഇല്ലേ അത് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയായിരിക്കും കൂടുതൽ നല്ലത് ആ വീട്ടിൽ ചെന്നിട്ടാണോ ആ ഓക്കെ നമ്മുടെ സമയം ഓള്റെഡി തീര്ന്നു ഓക്കെ കേട്ടോ